ആയിരത്തിത്തോള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്ത് ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ നാല് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി നാല് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത് ജനുവരി ആറ്